പണ്ട് കാലങ്ങളിൽ ഒരു കുടുംബത്തിലെ എല്ലാവരും തന്നെ കൃഷിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ വേറെ പല ജോലികളും തേടിപ്പോകുന്ന ആൾക്കാരാണ് നമ്മുടെ നമ്മുടെ നാട്ടിലും കുടുംബത്തിലും ഉള്ളത് അപ്പം കൃഷിയുടെ പ്രാധാന്യം എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ കൃഷിയില്ലെങ്കിൽ നമുക്ക് കഴിക്കാനോ ഇതാക്കാനോ ഒന്നും ഒന്നും ഉണ്ടാവില്ല അപ്പം കൃഷി നമ്മളിപ്പം നെല്ല് വിളയിക്കുന്നു നെല്ല് കുത്തി അരിയാക്കിയാൽ മാത്രമേ നമുക്ക് കഴിക്കാൻ ചോറ് ചോറ് കഴിക്കാൻ പറ്റുള്ളൂ അതുപോലെത്തന്നെ തക്കാളി പച്ചക്കറികളൊക്കെയാണെങ്കിലും കൃഷി ചെു ഉണ്ടാക്കിയ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ പിന്നെ നമ്മളെ നമ്മൾ ഇതൊന്നും കൃഷി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ തക്കാളി ഉള്ളി നെല്ല് അരി ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുള്ള ആൾ പുറം നാട്ടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ പിന്നെ അതുകൊണ്ടുതന്നെ നമ്മൾ കൃഷി ചെയ്യുന്നയാണ് ഏറ്റവും നല്ല കാര്യം എന്നു പറയുന്നത് അപ്പോൾ നമ്മൾക്ക് നമ്മുടേതായ ആവശ്യങ്ങൾ നടക്കുകയും എന്താ നടക്കുകയും ചെയ്യുന്നു പിന്നെ കുടുംബ കുടുംബത്തിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ പേര് മാത്രമേ കൃഷിയിലേക്ക് ഇറങ്ങുന്നുള്ളൂ ബാക്കി എല്ലാവരും എന്താ പറയുക പുതിയ പുതിയ ജോലികൾ തേടി പോകുകയാണ് ചെയ്യുന്നത്